കേരളത്തിലെ പ്രാധാന ആരോഗ്യ നയങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം ഒരു നല്ല രീതിയിലുള്ള നയങ്ങളും ചട്ടങ്ങളും തന്നെയാണ് ഗവൺമെൻറ്റ് മുന്നോട്ടു വച്ചേക്കണത് കേരളത്തിൻ്റെ ഇമ്പോർട്ടൻറ്റായിട്ടുള്ളൊരു നയമെന്താണെന്നു വെച്ചാൽ പ്രതിരോധ നടപടികളിലൂടെ ആരോഗ്യം സംരക്ഷിക്കുകയെന്നുള്ളതാണ് അതിലിപ്പോൾ ഒന്ന് വന്നിട്ട് ഗവണ്മെൻറ്റാശുപത്രികളിൽ ചെന്നാൽ നമുക്ക് വാക്സിൻ വഴി പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന പല അസുഖങ്ങളുണ്ട് അതിൻ്റെ എല്ലാം വാക്സിനേഷനും അപ്പോൾ ആ ഇമ്മ്യൂണൈസേഷൻ വഴി ആ പല പല ഡിസീസസ് അതായത് രോഗങ്ങൾ നമുക്ക് പിൻവലിക്കാൻ സാധിക്കും അതൊന്ന് അതല്ലാതെ തന്നെ ഇപ്പോൾ മഴക്കാലമായാൽ പല പൊതുപ്രവർത്തകരും വന്ന് വീട്ടിലെല്ലാം അന്വേഷിക്കാറുണ്ട് വെള്ളം കെട്ടി കിടക്കേണ്ടോ ഇല്ലയോ എന്നൊക്കെ അപ്പം അങ്ങനത്തെ ഓരോ മാർഗ്ഗ നിർദ്ദേശങ്ങളും മാന മാനദണ്ഡങ്ങളും ഉപയോഗിച്ച് കൊണ്ട് തന്നെ കുറേ ആരോഗ്യം മെച്ചപ്പെടുത്തിയിട്ടുണ്ട് അതല്ലാതെ പിന്നെ മന്തിൻ്റെ ഗുളിക കൊതുക് കാരണം വരുന്ന മന്തിന് ഗുളിക സൗജന്യമായിട്ടെല്ലാ വീടുകളിലും ചെന്ന് പൊതുപ്രവർത്തകർ കൊടുക്കാറുണ്ട് പിന്നെ പറയുകയാണെങ്കിൽ ഗർഭിണിയായ സ്ത്രീക്കും കുട്ടിക്കും ആ ഒരു ആ ഒരു സമയത്ത് പാലിക്കേണ്ട നിയമങ്ങളും മാർഗ്ഗ നിർദ്ദേശങ്ങളുമെല്ലാം ഗവണ്മെൻറ്റ് തന്നെ കൊടുക്കാറുണ്ട് അതേപോലെ അവർക്കുള്ള മരുന്നും എല്ലാമെല്ലാം തുച്ഛമായ വിലയിൽ സൗജന്യമായി തന്നെ പല ഗവണ്മെൻറ്റാശുപത്രികളിലും കൊടുക്കാറുണ്ട് അപ്പം ഇങ്ങനത്തെ ഓരോ നിയമങ്ങളും നിർദേശങ്ങളും നൽകി കൊണ്ട് തന്നെ ഗവണ്മെൻറ്റ് തൻ്റെ നാട്ടിലാൾക്കാരോട് ആരോഗ്യം മികവ് വരുത്താൻ ശ്രമിക്കാറുണ്ട്